ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ കാലാവസ്ഥയും അവിടുത്തെ അതിൻ്റെ പരിസ്ഥിതി കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ കിടപ്പിലായവരുടെ കിടപ്പിലായ പ്രായമായ ആളുകൾ കിടപ്പിലാവുന്നതിൻ്റെ വ്യത്യസ്തത ൻ്റെ പറഞ്ഞാൽ അധ്വാനത്തിൻ്റെ ഭാഗം തന്നെയാണ് ചെറുപ്പകാലത്ത് ശ ഇവിടെ നമ്മുടെ മലമ്പ്രദേശത്ത് വന്ന് കുടിയേറ്റക്കാരാണ് കൂടുതലും വന്ന് ആദ്യ ഭയങ്കരമായ ശാരീരികമായ അധ്വാനവും ഇല്ലത്തെ അത് അതുമായി ബന്ധപ്പെട്ട നല്ല ഫുഡ് കി ലഭിക്കാതെയും പോഷകഗുണങ്ങളുള്ള ആഹാരം ലഭിക്കാതെയും സമയാസമയങ്ങളിലുള്ള സമയത്ത് ഭക്ഷണം വിശപ്പിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിലൂടെ കടന്നുപോവേണ്ടി വന്നവരാണ് അധ്വാനം അധ്വാന കഠിനാധ്വാനം ചെയ്ത മനുഷ്യരാണ് കൂടുതൽ ഈ പ്രായമായിട്ട് കിടപ്പിലായതിൽ കൂടുതലും അപ്പോൾ അവർക്ക് ശരിക്കുള്ള ആഹാരമൊന്നും ആ നല്ല സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ആരോഗ്യമുള്ള സമയത്തൊന്നും ആഹാരമോ പോഷകഗുണങ്ങളൊന്നു കിട്ടിയിട്ടില്ല അതിൻറേതായ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട്

രണ്ടാമതെന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയും കുട്ടികളുടെയെല്ലാം പഠനത്തിന് കുടുംബത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെ പണി എടുത്തവരാണ് കൂടുതലും അപ്പം അതിനനുസരിച്ച് അവരുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായിട്ടുണ്ട് തേയ്മാനമായിട്ടും കാലിൻ്റെ തേയായാലും നട്ടെല്ലിൻ്റെ ആയാലും ശാരീരിക പിന്നെ ഹാർട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാലും നല്ല സമയത്ത് ചികിത്സകൾ കിട്ടാതെയും ഒക്കെ പല ആർക്കും അങ്ങനെ കിടപ്പിലായിട്ടുണ്ട് പലരും ചിലർ സ്ട്രോക്ക് വന്നും അതുപോലെ തന്നെ ചിലർക്ക് തേയ്മാനം കാലനക്കാൻ വയ്യാതെയും ചലനശേഷി നഷ്ടപ്പെട്ടൊക്കെ ഉള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും സാമ്പത്തികമായിട്ട് വലിയ വലിയ ഭദ്രതയുള്ളവരല്ല അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ചികിത്സ കിട്ടാതെയൊക്കെ അവർ ശുശ്രൂഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഒരുപാട് പേരുണ്ട് പിന്നെ മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പം ഇപ്പം തന്നെ ഇപ്പോഴാണ് ഈ ഒരു പത്ത് വർഷത്തിന് പത്ത് പതിനഞ്ച് വർഷം കൊണ്ടാണ് വിദേശത്തേക്ക് കുടിയേറ്റം നടക്കുന്നതുകൊണ്ടും മക്കൾ എല്ലാവരും ജോലി തേടി നല്ല ജോലികൾക്കും നല്ല ശമ്പളം ഉള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്കൊക്കെ പോവുന്നതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ശുശ്രൂഷ ലഭിക്കുന്നില്ല മക്കളോട് പരിരക്ഷ ലഭിക്കുന്നില്ല അതുകൊണ്ട് സമയത്ത് ചികിത്സിക്കാനൊന്നും പറ്റുന്നില്ല അവർ അവിടെ ഇരുന്ന് സാമ്പത്തികമായിട്ട് കുറേ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ നിന്നുള്ള ചികിത്സ വർദ്ധക്യത്തിൽ കൂടെ നിന്നുള്ള ചികിത്സ കുടുംബാംഗങ്ങൾക്ക് പേരൻറ്സിന് കിട്ടുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പിന്നെ ഈ രോഗങ്ങൾ വരുമ്പോഴും സമയാസമയങ്ങളിൽ ശുശ്രൂഷ ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഒരു അസ്വസ്ഥത ഒരുപാടുണ്ടായിട്ടുണ്ട് ആൾക്കാർക്ക് പിന്നെ ക ഇവിടുത്തെ ഈ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള സാമ്പത്തികമായിട്ട് ഉന്നതിയുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ വളരെ ഇപ്പോൾ ഇപ്പോൾ കുറേ പേറ് ചിലരൊക്കെ വിദേശത്തൊക്കെ പോയി സാമ്പത്തിക ഉണ്ടെങ്കിലും അവർക്കൊന്നും ശരിക്കുള്ള ചികിത്സ ലഭിക്കാനുള്ള മാർഗങ്ങളും കിട്ടുന്നില്ല പിന്നെ അധ്വാനത്തിൻ്റെ ഫലമാണ് ചെറുപ്പം ആയ നല്ല സമയത്ത് ഇവിടെ വന്ന് പിന്നെ മണ്ണ് വെട്ടി പിന്നെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ആയുഷ്ക്കാലം ആ നല്ല സമയങ്ങളിൽ അധ്വാനം കഠിനാധ്വാനം അന്ന് മറ്റ് ചികിത്സകളൊന്നും ഇല്ല അതിനനുസരിച്ചുള്ള ആഹാരമോ പോഷകഗുണങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അന്ന് സാഹചര്യങ്ങളൊക്കെ മോശമായിരുന്നു ചികിത്സ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ മോശമായിരുന്നു ഇപ്പോൾ ചികിത്സയൊക്കെ ലഭിക്കും പക്ഷേ അന്നേരം സമ്പത്ത് കുറവാണ് അതിനനുസരിച്ചുള്ള ചികിത്സ ലഭിക്കാൻ പറ്റുന്നില്ല സമ്പത്ത് വലിയ വലിയ ചികിത്സകൾ വലിയ വലിയ ഹോസ്പ്പിറ്റലുകൾ പോയി ചികിത്സ ലഭിക്കണമെന്ന് ഉണ്ടെങ്കിൽ അതിനുള്ള രീതി അനുസരിച്ചുള്ള സാമ്പത്തികവും വേണം അപ്പം അതൊന്നും ചില കുടുംബത്തിൽ അങ്ങനെയുള്ള സംവിധാനം ഇല്ല സമ്പത്തില്ല അപ്പോൾ അതനുസരിച്ച് ചികിത്സയ്ക്ക് അവർക്ക് ഒരു പോവാൻ പറ്റുന്നില്ല അങ്ങനെ കിടപ്പിലായവരുണ്ട് പിന്നെ ശുശ്രൂഷ ലഭിക്കാത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലും മക്കളില്ല പഴയ കാലത്തുള്ളത് പോലെ മക്കൾ കുറവാണ് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അവർ പുറത്തോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അവർക്ക് മക്കൾ കുറവായതുകൊണ്ട് കൂടെ നിന്ന് ചികിത്സിക്കാനൊന്നും ആരും ഇല്ല ആരെയെങ്കിലും വാർദ്ധക്യത്തിൽ അവറ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് കിടന്ന് ചികിത്സിക്കുന്നു അവർ മക്കൾ ചിലർ സമ്പത്തും എടുത്തുകൊണ്ട് പോയി വളരെ മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉള്ളവരൂരും ഉണ്ട് പക്ഷേ എന്നാലും കൂടുതലും ഈ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് മക്കൾക്കായാലും കൂടുതൽ സമ്പത്ത് ഇല്ലാത്തതുകൊണ്ടും ശുശ്രൂഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല പിന്നെ നല്ല ജോലിസ്ഥിരതയും നല്ല സാമ്പത്തിക സ്ഥിരതയും ഉള്ളവർ ഒക്കെ നല്ല ശുശ്രൂഷകളൊക്കെ ലഭിക്കുന്നുണ്ട് അവർ കൂടെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ മറ്റുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് അതനുസരിച്ചാണ് ഇപ്പം ഇവിടെ നമ്മുടെ ഗ്രാമത്തിലെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ ഗ്രാമമാണ് അവിടെ മറ്റ് എല്ലാ ഒരു ആഹാര സ ആഹാര ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ജോലിയാണ് എല്ലാരും കൂലി വേലക്കാരും മറ്റ് കാര്യങ്ങളും ആയതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച മറ്റ് രീതിയിലേക്ക് പോവാൻ പറ്റിയിട്ടില്ല മറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ചിലവുളള ചികിത്സാ രീതികളിലേക്കും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇവിടെ എത്തി പിന്നെ മറ്റുള്ള മാർഗങ്ങളൊക്കെ എത്തിക്കിട്ടാനൊക്കെ പ്രയാസമാണ് അതെല്ലാം വളരെ സ്വാധീനം ചെലുത്തിയും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങ് മാറുവാണ് അപ്പോൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു സംരക്ഷണവും കുറവാണ് അതൊക്കെ കിട്ടി വരുന്നതൊക്കെ സമയങ്ങൾ എടുക്കും അപ്പോഴത്തേക്കൊക്കെ ജീവിതം അപ്പോഴത്തേക്ക് രോഗത്തിൻ്റെ കഷ്ടതയിലേക്ക് പോവും അതനുസരിച്ച് ഒക്കെയുള്ള അങ്ങനെയാണ് അതിൻ്റെ വരുന്നത് പിന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നുള്ള ചിന്ത മക്കൾക്ക് ഉണ്ട് എങ്കിൽത്തന്നെയും അവർക്ക് കൂടുതലായിട്ട് ചികിത്സ കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും ഉള്ള സാമ്പത്തികം മക്കളുടെ കൈവശം ഇല്ലാത്തതുകൊണ്ട് ചില കുടുംബങ്ങളിൽ സാമ്പത്തികമായിട്ട് ഭദ്രത കുറവായതുകൊണ്ട് ഒക്കെ പിന്നെ ചിലത് നല്ലതുപോലെ ചികിത്സിക്കുന്നുണ്ട് നല്ലതുപോലെ സംരക്ഷിക്കുന്നുണ്ട് ഉള്ളത് പോലെ ഉള്ളത് മക്കൾ കൂടെ നിന്ന് സംരക്ഷിക്കുന്നവരും ഉണ്ട് അപ്പം അതിനനുസരിച്ച് ശുശ്രൂഷി ശുശ്രൂഷ ലഭിക്കുന്ന കുടുംബാംഗങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ പല പല കാരണങ്ങളാണ് സാമ്പത്തികം പ്രധാനം പിന്നെ ജോലിസ്ഥിരത പിന്നെ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ പിന്നെ പോഷകഗുണത്തിൻ്റെ വ്യത്യാസങ്ങൾ പിന്നെ സമയാസമയങ്ങളിലെ കാര്യങ്ങൾ ആ ചികിത്സ ലഭിക്കാതെ വന്നതുകൊണ്ടുള്ള അനുഭവങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഭാഗമായിട്ട് വരുന്നുണ്ട്